ഹലോ തോമസേട്ടൻ അല്ലേ ആ തോമസ് ഏട്ടാ നാളേ എനിക്ക് ഒന്ന് കോഴിക്കോട് വരെ പോകണായിരുന്നു അപ്പോൾ ഒന്ന് എനിക്ക് റെയില്വേ സ്റ്റേഷനെ എന്നെ ഒന്ന് കൊണ്ടു പോയി ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ഒരു ആറു മണിക്ക് ഒന്ന് വരുമോ വരുവാണെങ്കിൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു ഇനി തോമസേട്ടന് വരാന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എന്നോട് നേരത്തെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ ആരെയെങ്കിലും വിളിക്കണ്ടേ അതുകൊണ്ടാണ് കോഴിക്കോട് പോകണം ഞാൻ തിരിച്ചു വരുമ്പോഴത്തേനും തിരിച്ചു എന്നെ ഇവിടെ കൊണ്ട് വന്നു ആക്കുകയും ചെയ്യണം അപ്പോൾ സ്റ്റേഷനിൽ വരുകയും ചെയ്യണം ആ സമയം ഞാൻ അന്നേരം നേരത്തെ വിളിച്ചു പറയാം ഇപ്പം ഇന്ന് രാവിലെ നാളെ രാവിലെ വരുമോ എന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ ശരി എന്നാൽ